തിരുവനന്തപുരം ജില്ലയിൽ എനിക്ക് പറയാനുള്ളത് പിന്തുടർന്ന ചില പൊതുവായ സാമൂഹിക അല്ലെങ്കിൽ സാംസ്കാരിക രീതിയിലുള്ള ആചാരങ്ങളെന്നുവെച്ചാൽ മെയിനായിട്ടെനിക്കു പറയാനുള്ളത് ഭീമാപള്ളി ഉറൂസ് അതൊരു എ എങ്ങന പറയണമെന്നെനിക്കറിഞ്ഞൂ കൂടാ വലിയൊരു ഫെസ്റ്റിവലാണ് തിരുവനന്തപുരം ജില്ലയിലെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളം കേരളത്തിലെന്നു പറയാൻ പറ്റത്തില്ല ഇന്ത്യയിലെ ഇന്ത്യയിൽ നിന്നും അങ്ങോളമിങ്ങോളം ആളുകൾ ഈ ഉത്സവം കാണാൻ വേണ്ടി ഭീമാപള്ളി വരികയും അതു കാണുകയും അവർ പ്രാർത്ഥിക്കുകയും അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുകയും അങ്ങനെ അങ്ങനെ അതൊരു ഉത്സവത്തിൻറ്റൊരു പ്രതീതിയാണ് ആ ഭീമാപള്ളി ഉറൂസിൽ നമുക്കു ചെന്നാൽ കാണാൻ പെടുന്ന കാണാൻ പറ്റുന്നത് നാനാജാതിമതസ്ഥർ ഈ ഭീമാപള്ളി ഉറൂസ് കാണാൻ തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുന്നതാണ് അങ്ങന ഈ ഭീമാപള്ളി ഉറൂസിലേക്ക് നമ്മുടെ സാംസ്കാരികമായ ഒരു ഐക്യ ഐക്യവും ആം എല്ലാ മതങ്ങളുടെയും ഒരു കൂട്ടിച്ചേരലുമാണ് ഈ ഭീമാപള്ളി ഉറൂസിലൂടെ തിരുവനന്തപുരത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് തിരുവനന്തപുരം ചില്ലയിൽ ജില്ലയിൽ പിന്തുടരുന്ന ചില പൊതുവായ സാമൂഹിക സാംസ്കാരികരീതികളെന്നു ഞാൻ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു